ഏ എൻറ്റെ നാട് വയനാടാണ് വയനാട്ടിൽ ഈ കുറിച്ചന്മാരുടെ ആദിവാസികളുടെ കുറെ നാടോടിപ്പാട്ടുകളുണ്ട് അവരുടെ പൂത്തുമ്പി കുർലമമ എന്ന പാട്ട് നല്ല ഫീലാണ് അതിവർ ചില സമയത്ത് കല്യാണത്തിന് പാടും നമ്മുടെ മലയാള പാട്ടുകളെ അപേക്ഷിച്ച് ഇവരുടെ നാടൻപാട്ട് ഇഷ്ടം നാടൻപാട്ട് പോട്ടെ നാടോടിപ്പാട്ട് എന്ന് പറയുന്നത് നല്ലൊരു വൈബാണ് പിന്നെ ഇവരെല്ലാവരും കൂടെ ഒത്തുചേർന്നേ പാടുള്ളൂ അതൊരു ഗ്രൂപ്പ് ആയിട്ടേ പാടുള്ളൂ നല്ലൊരു പാട്ടാണ് അന്ന് ഞാൻ കേട്ടത് ആകെക്കൂടെ രണ്ട് പാട്ടുകളാണ് അതിലൊന്ന് പൂത്തുമ്പി കുർളമാമി പിന്നെ വേറൊരണ്ണം ട്യൂൺ മാത്രമുള്ള ഒരു പാട്ടാണ് അതെനിക്ക് ഓർമ്മയില്ല നല്ല പാട്ടാണ് അത്യാവശ്യം നല്ലൊരു പാട്ടാണ് കേട്ടിരിക്കാം അത് കല്യാണവൈബിനും പിന്നെ ഈ ഡാൻസ്ൻറ്റെ വൈബ് ഒക്കെ ഉണ്ടാവുമല്ലോ ആ സമയത്ത് ഇവർ പാടുമ്പോൾ അടിപൊളിയാണ് പിന്നെ അത്യാവശ്യം നല്ലൊരു പാട്ട് തന്നെയാണ് അത് അവരെല്ലാവരും കൂടെ വട്ടത്തിൽ നിന്ന് പാടും കേൾക്കുമ്പോൾ നല്ല രസമുണ്ട് പിന്നെ അവരുടെ ഡാൻസ് സ്റ്റെപ്പുമുണ്ട് അടിപൊളി പാട്ടാണ് അത്